ആ പറഞ്ഞോളൂ ആണ് അതെ അതെ ഞാനാണ് എൻ്റെ എൻ്റെ ആണത് അതെ ആ പറഞ്ഞോളൂ അതെ അതെ അതെ പറഞ്ഞോ ആ എന്താണ് ആവശ്യം ഉണ്ടല്ലോ കരിമീൻ രണ്ട് ടൈപ്പ് ഉണ്ട് കുട്ടനാടൻ കരിമീനും ഉണ്ട് പിന്നെ നമ്മുടെ ആന്ധ്രാ കരിമീനും ഉണ്ട് ആന്ധ്രാ കരിമീനിന് കുറച്ച് വില കുറഞ്ഞിരിക്കും കുട്ടനാടൻ കരിമീൻ ആവുമ്പോഴത്തേക്ക് ഇത്തിരി വില കൂടും പക്ഷേ ക്വാളിറ്റി നല്ലതാണ് വലിയ തരത്തിലെ ടേസ്റ്റ് ഇല്ല അത് കരിമീൻ എന്ന പേരേ ഉള്ളൂ കാരണം ഇത് ഈ പുറത്തു നിന്ന് വന്നവർക്ക് കരിമീൻ അവർക്ക് അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി അറിയില്ല നമ്മുടെ നാട്ടുകാർക്കേ അറിയുള്ളൂ ശരിക്കുള്ള കരിമീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടനാടൻ കരിമീനാണ് അതിൽ പ്രത്യേകിച്ച് നമ്മുടെ തണ്ണീർമുക്കം ഭാഗത്തുള്ള കരിമീനാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളതെന്ന് പറയുന്നത് ആ സാധനമുണ്ട്

ആ മീഡിയം ടൈപ്പ് മീഡിയം ടൈപ്പ് ആവുമ്പോൾ ഒരു കിലോ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറെണ്ണം ആറെണ്ണം തൂങ്ങും ആ ആറെണ്ണമാണ് അത് മീഡിയം അതിൽ കുറഞ്ഞത് കൊള്ളില്ല അഞ്ച് അല്ലെങ്കിൽ ആറെണ്ണം ആറെണ്ണമാണ് അതിൻ്റെ ഒരു മീഡിയം ടൈപ്പ് ആ കൊള്ളാം ആയിക്കോട്ടെ ആ അതിന് തന്നെ അതാണ് ഇപ്പം ഹോട്ടലിൽ കൊടുക്കുന്നത് അവർ അതാണ് എടുക്കുന്നത് കാരണം എന്താണെന്നറിയുമോ ഒരു പ്ലെയിറ്റിൽ പറഞ്ഞാൽ അത് ആ ഒരു പ്ലെയിറ്റിനുള്ളിൽ ഇരിക്കത്തക്ക ഉള്ളൊരു കരിമീനാണത് ഒരു പ്ലെയിറ്റിൽ ഏയ് അത് ബുദ്ധിമുട്ടാണ് അത് അതിന് ടേസ്റ്റ് കുറവാണ് ഇടത്തരം കരിമീനാണ് ടേസ്റ്റ് ഉള്ളത് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ആ വില നാടൻ കരിമീൻ ഇപ്പോൾ അഞ്ഞൂറ്റൻപത് അറനൂറാണ് ഇപ്പോഴത്തെ ഒരു ടാർഗെറ്റ് അത് ഓരോ ദിവസം കൂടി വരും കേട്ടോ ചില ദിവസം ചിലപ്പം അഞ്ഞൂറിനും കിട്ടും ചില ദിവസം അഞ്ഞൂറ്റൻപത് ആവും ചില ദിവസം അറനൂറാവും അത് മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ഫിക്സഡ് റേറ്റ് ഇല്ല അതിൻറെ അകത്ത് മറ്റേ ആന്ധ്രാ കരിമീൻ ആണെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് കിട്ടും

ആ അത് ആവശ്യം അത് അഡ്ജസ്റ്റ് ചെയ്തുതരാം അത് കുഴപ്പം ഒന്നുമില്ല എന്നാണ് വേണ്ടത് ഞായറാഴ്ചകളിൽ കുഴപ്പം ആണെന്നേ ഞായറാഴ്ച വില കൂടുതലാണ് എപ്പോഴും ആ അതൊരു കാര്യം ചെയ്താൽ മതി ശനി ശനിയാഴ്ചയേ ശനിയാഴ്ച വാങ്ങിച്ചിട്ടേ ശനിയാഴ്ച്ച വാങ്ങിച്ചിട്ട് ഇവിടെ ഇപ്പം നമ്മൾ അവിടെ മാർക്കറ്റിൽ വെട്ട് വെട്ടുന്ന ആൾക്കാരുണ്ട് ഏ മീൻ വെട്ടുന്ന അവർക്ക് ഏതാണ്ടൊരു മുപ്പത് രൂപയോ മറ്റോ ഒരു കിലോ മീൻ വെട്ടി തരുന്നതിന് കരിമീൻ വെട്ടുന്നതിന് കൊടുത്തുകഴിഞ്ഞാൽ അവർ വൃത്തിയായിട്ട് തരും അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഫ്രീസറിനകത്ത് കുറച്ച് ഒരു ട ഒരു എന്താണ് ഒരു കണ്ടെയിനർ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇരുന്നോളും എത്ര ദിവസം വേണമെങ്കിലും ടേസ്റ്റ് മാറില്ല അപ്പം ഞായറാഴ്ച്ച വാങ്ങാൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ശനിയാഴ്ച തന്നെ വാങ്ങി വയ്ക്കുക ശനിയാഴ്ച ആവുമ്പോൾ നമുക്ക് കുറച്ച് ഡിമാൻഡ് കുറവായിരിക്കും ഞായറാഴ്ച എല്ലാ മീനും ഡിമാൻഡ് കൂടുതലാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച്ച ആൾക്കാർ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ മീൻ ഇറച്ചിയും മീനും അപ്പം അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അത് ആയിക്കോട്ടെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അന്നേരം ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി എത്ര വേണമെങ്കിലും തരാം അതിന് കുഴപ്പം ഒന്നുമില്ല എല്ലാവർക്കും കൊടുക്കുന്നതിലും അഡ്ജസ്റ്റ് ചെയ്തുതരാം എല്ലാവർക്കും കൊടുക്കുന്നതിലെ അഡ്ജസ്റ്റ് ആ ശരി ശരി അന്നേരം വന്നോളൂ ആവശ്യം ഉള്ളപ്പോൾ വന്നാൽ മതി കേട്ടോ